ആ മനസ്സിലായി മനസ്സിലായി റാണിയല്ലേ ആ എന്താണ് മകളെ എന്താണ് വിളിച്ചത് ആ പറ പറ പറ കാര്യം എന്തുവാ ധ്യാനത്തിനാന്നോ എന്നത്തേക്കാ എത്ര ദിവസത്തേക്കാണ് ആ അതിന് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ആ അവിടെ താമസിക്കണോ ആ ഹാ ഹാ ഹാ ആരാ ക്ലാസ് ഒക്കെ എടുക്കുന്നത് ആ ആ ആ ഓക്കേ ഓക്കേ രോഗശാന്തി ശുശ്രൂഷയൊക്കെ ഉണ്ടോ രോഗശാന്തി ശുശ്രൂഷയൊക്കെ ഉണ്ടോ എന്ന് ആ ഹ ഹ എന്തുവാണ് ഈ ധ്യാനത്തിൻ്റെ ഞങ്ങൾക്ക് ക്ലാസ്സിൻ്റെ വിഷയം തന്നേക്കുന്നത് എന്ത് ഏതിനെക്കുറിച്ചാണ് കുർബാനയെക്കുറിച്ചാണോ അതോ എന്നാ പിന്നെ ഓക്കേ എന്താ കാര്യം ബൈബിളിനെ കുറിച്ചാണോ എങ്ങനെയാ എന്താ കാര്യം ഡീറ്റൈൽ ഒന്ന് പറയ് ഉം ആ ഉം ഓ ഹോ ആ പ്രായപരിധിയില്ല എല്ലാവർക്കും വരാമോ അതോ ഇത്രേ കുട്ടികൾക്ക് അങ്ങനെ എങ്ങാനും വ്യത്യാസം അങ്ങനെ ഉണ്ടോ അതോ എല്ലാവർക്കും വരാൻ ആണോ ധ്യാ ആഹഹാ ഏക്

റാണി അവിടെയാന്നോ

അതല്ല എന്നാ എന്നാ തുടങ്ങുന്നത്

ആഹും ആ ആ ഓക്കേ ഓക്കേ നാളെ വരാം ശരി ശരി ഓ ഓക്കേ ഓ ആ ശരി ശരി ശരി ആ കഴിഞ്ഞു